ആ ടാക്സി ഡ്രൈവർ അല്ലേ ഞാൻ മലപ്പുറത്തുനിന്നാണ് വിളിക്കുന്നത് ആ ഞാൻ മൂന്നാർ രണ്ട് ദിവ ദിവസത്തെ ട്രിപ്പിന് ഒന്ന് പോവാമെന്ന് കരുതി നാളെ വൈകിട്ട്

ഞങ്ങളൊരു നാല് പേർ ആ ഇല്ലില്ല കുട്ടികളൊന്നുമില്ല നാളെ ശനിയല്ലേ നാളെ രാത്രി പോയിട്ട് തിങ്കളാഴ്ച രാവിലെ ഇവിടെ എത്തണം ആ അതെ ഒരു പത്ത് മണിക്കൊക്കെ പോയാൽ മതിയല്ലേ ആ ആ ആ അതെ അപ്പോൾ പിന്നെ ബ്ലോക്ക് ഒക്കെ കുറവാവുമോ നിങ്ങൾക്കവിടെ ആ അവിടെ സ്ഥലമൊക്കെ നിങ്ങൾക്ക് ശരിക്ക് പരിചയമുള്ളതല്ലേ ഉം അവിടെ എന്തൊക്കെയാണ് കാണാൻ അവിടെ കാണാനുള്ളത് എന്തൊക്കെ ആ നിങ്ങൾക്കവിടെ താമസിക്കാൻ റൂം ഒക്കെ അറിയുന്ന ആൾക്കാരുണ്ടൊ അവിടെ

ആ ആ അത് കുഴപ്പമില്ല ഉം ആ ആ ആ ആ ആ നിങ്ങൾ സെൻട്രൽ അവിടെ ജുമാ മസ്ജിദില്ലേ അവിടെ വന്നാൽ മതി അപ്പോൾ ഞാൻ അവിടെ വന്നിട്ട് ആ ഞങ്ങൾ അവിടെ വിളിക്കാം ആ ജുമാ മസ്ജിദിൻ്റെ അവിടെ എത്തിയിട്ട് നിങ്ങൾ വിളിച്ചാൽ മതി അപ്പം ഞങ്ങൾ അങ്ങോട്ട് വരാം അല്ലെങ്കിൽ സ്ഥലം പറഞ്ഞ് തരാം അപ്പോൾ നിങ്ങൾ അങ്ങോട്ട് വന്നാൽ മതി ആ എതിരെ വണ്ടിയിലിരുന്ന് നിങ്ങൾ ആ മൺഡേ